ക്യാബ് ഡ്രൈവർ ആണോ എനിക്ക് ഞാൻ വായനാട്ടിൽ നിന്ന് വിളിക്കുന്നതാണേ നമുക്ക് വയനാട് ടു മൂന്നാറിലേക്കൊരു ട്രിപ്പ് പോവാനായിരുന്നു നമുക്കൊരു ഒരാഴ്ചത്തേയ്ക്കുള്ള ട്രിപ്പ് ആണേ അപ്പം നിങ്ങളും നമ്മുടെ കൂടെ താമസിച്ച് അങ്ങനെ ആ നമുക്ക് കുറേ മൂന്നാറിൽ കുറേ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആ അപ്പം എങ്ങനെയാണ് റേറ്റ് ഒക്കെ കാര്യങ്ങളും റേറ്റ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ്

ആ വേറെ അവിടെ നിങ്ങൾക്ക് അറിയില്ലേ സ്ഥലങ്ങളൊക്കെ അപ്പം നമുക്ക് അറിയുന്നതായിരുന്ന നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പതിനയ്യായിരം രൂപ അല്ലേ നിങ്ങളുടെ ഫുഡ് താമസം ഒക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ നോക്കുന്നത്

ആണല്ലേ ആ അതൊന്നും കുഴപ്പം ഇല്ല റേറ്റ് ഒന്നും കുഴപ്പമില്ല പിന്നെ നല്ല നല്ലോണം അത്യാവശ്യം നല്ലോണം ഓടിക്കുന്ന ആളായിരിക്കണം ആ അപ്പം നിങ്ങക്ക് താമസ സൗകര്യം കാര്യങ്ങളൊക്കെ അതായത് ഇത് ചെയ്യാൻ അറിയുവോ അവിടെ ഒക്കെ റിസോർട്ടുകൾ കാര്യങ്ങൾ ഒക്കെ അറിയുവോ നിങ്ങൾക്ക്

ആ പിന്നെ പിന്നെ നമുക്ക് ഫുഡ് ആ ഫുഡിന് ഫുഡ് കാര്യങ്ങളൊക്കെ

ആ അപ്പം നിങ്ങൾ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കോളുവല്ലോ അല്ലേ നമ്മൾ ആ ഫണ്ട് നമ്മൾ എത്ര എടുക്കണം നമുക്ക് അതൊരു വിഷയം അല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല താമസത്തിന് നല്ല സൗകര്യം വേണം പിന്നെ അതേപോലെ നല്ല ഫുഡ് ആയിരിക്കണം പിന്നെ അത്യാവശ്യം നല്ലോണം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആയിരിക്കണം നമുക്ക് അതേ ഉള്ളൂ നമുക്ക് ഫൈവ് സ്റ്റാർ തന്നെ ആയിക്കോട്ടെ എല്ലാം അപ്പം നമുക്ക് മൂന്നാറിൽ മാക്സിമം എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്യണം അതായത് എല്ലാ സ്ഥലത്തിനേയും കുറിച്ച് അറിയുന്ന ആളായിരിക്കണം പിന്നെ അതുപോലത്തന്നെ നല്ല നല്ല റിസോർട്ടിനെ കുറിച്ച് നല്ല ഫുഡ് അതായത് ഫുഡ് ഉള്ള നല്ല ഫുഡ് ഒക്കെ ഉള്ള സ്പോട്ടുകൾ ഒക്കെ ഉണ്ടാവില്ലേ അവിടെ ഒക്കെ കൊണ്ടുപോവുന്ന ആളായിരിക്കണം ഫുഡ് ഫുഡ് ഒന്നും നമുക്ക് മോശമേ ആവാൻ പാടില്ല ഞങ്ങളൊരു നാല് പേരാണ് അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും ആണ് നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരു പിന്ന എക്സ്ക്യൂസും ഇതാക്കാൻ പറ്റില്ല അപ്പം എല്ലം അറിയുന്ന ഒരാളായിരിക്കണം ക്യാഷ് ഞങ്ങൾ എത്ര വേണമെങ്കിലും മുടക്കും ആ ഈ ആഴ്ച്ച ഞായറാഴ്ച്ച പോരൂ നിങ്ങൾ ഞായറാഴ്ച്ച ഒരു നമുക്ക് ഈവനിംഗ് പുറപ്പെട്ടാൽ പോരേ അങ്ങനെ ആവുമ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുവല്ലോ അപ്പം നമുക്ക് യാത്രാ ക്ഷീണം ഉണ്ടാ നമ്മൾ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് യാത്രാ ക്ഷീണം ഉണ്ടാവില്ലല്ലോ ആ ആയിക്കോ ആയിക്കോ ഓക്കെ താങ്ക് യൂ എന്നാൽ കേട്ടോ മ്